മലയാളഭാഷയും മറ്റ് ഭാഷകളെല്ലാം അത് തെലുങ്കു കർണാടക ഇതെല്ലാം നമ്മുടെ ദ്രാവിഡ ഭാഷയിൽ പെടുന്നതാണ് അതില് നമ്മുടെ മലയാളഭാഷയും സംസ്കൃതവുമായിട്ട് നല്ല ഒര് ബന്ധം ഉണ്ട് അതുപോലെ തന്നെ തെലുങ്കും കർണാടകയും നമ്മുടെ സംസ്കൃത്വുമായിട്ട് നല്ലൊരു സാമ്യമുള്ള ഒരു ഭാഷയാണ് ഇത് രണ്ടും ദ്രാവിഡ ഭാഷയെന്നാണ് അറിയപ്പെടുന്നത് ഇതിലെ ചില ഉച്ചാരണങ്ങളും വാക്കുകളെല്ലാം നമുക്ക് തെലുങ്കിലും കന്നടയിലും മലയാളത്തിലുമെല്ലാം നമുക്ക് ചില വാക്കുകൾ നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന സംസാരിക്കുമ്പോൾ നമ്മൾ ചില ദിവസം മലയാളമാണോ എന്ന് തോന്നി പോകുന്ന രീതിയിൽ ചില വാക്കുകളും ചില അക്ഷരങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത് രണ്ടും ഈ തെലുങ്കു കന്നഡ അതുപോലുള്ള മറ്റ് ഭാഷകളില് മലയാളം ആണെങ്കിലും എല്ലാം ഈ സംസ്കൃതം എന്നൊരു ഭാഷയിൽ നിന്ന് ലിപിയിൽ നിന്നെടു എടുത്തിരിക്കുന്നതാണ് ഈ ഭാഷകളെല്ലാം